ഇപ്പോൾ കേരളത്തിൽ ഊർജ്ജോത്പാദനം നടത്തുന്ന പല ജില്ലകളുണ്ട് അപ്പോൾ നമുക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഊർജ്ജോത്പാതിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കിയിലാണ് ഇടുക്കിയിലെന്നു പറഞ്ഞുകഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നൊക്കെയാണ് കൂടുതൽ ആയിട്ടും ഊർജ്ജവും കാര്യങ്ങളൊക്കെ ഉത്പാദിപ്പിക്കുന്നത് കറൻ്റ് ഉത്പാദിപ്പിക്കുന്ന പ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഡാമും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരത്തിലാണെങ്കിലും പല സംസ്ഥാനങ്ങളിലൊക്കെയാണെങ്കിലും നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ ഊർജ്ജവും കാര്യങ്ങളൊക്കെ ഉത്പാദിപ്പിക്കുന്നുണ്ട് അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇഷ്ടംപോലെയുണ്ട് ഇപ്പോൾ നമ്മുടെ മലമ്പുഴ ഡാം പിന്നെ വയനാട്ടിൽ തന്നെ രണ്ട് രണ്ട് ഡാമിനടുത്തുണ്ട് വയനാട്ടിൽ അപ്പോൾ പടിഞ്ഞാറെത്തറ ഡാം കാ കാരപ്പുഴ പിന്നെ നമ്മളുടെ ഇവിടെത്തന്നെ കക്കയം ഡാം അങ്ങനത്തെ ഡാമുകളൊക്കെയുണ്ട് അവിടെനിന്നൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കറന്റ് ഉത്പാദനവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാമുകൾ മെയിൻ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഡാമൊക്കെ ആ ഡാമിലൂടെയുള്ള വെള്ളം ഇതിൻ്റെ ഒഴു അതായത് വെള്ളം തുറന്നുവിടുന്നതിന് അനുസരിച്ച് നമ്മുടെ കറന്റ് ഉത്പാദനവും കൂടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ തിരുവന്തപുരത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൽക്കരി ഉത്പാദിപ്പിക്കുന്ന പല സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സൗരോർജം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉത്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ കേരളത്തിൽ ഇഷ്ടംപോലെ ഉണ്ട്